പാമ്പ് കടി ഏൽക്കാതിരിക്കുവാനായിട്ട് ബൂട്ട് ധരിച്ച് നല്ല ചെരുപ്പുകൾ ധരിച്ച് സഞ്ചരിക്കുക മാളങ്ങൾ പൊത്തുകൾ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ചെരിപ്പില്ലാതെ നടക്കാതിരിക്കുക മഞ്ഞൾ തേക്കുക വെളുത്തുള്ളി തേക്കുക എന്നുള്ളതെല്ലാം പ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പ മാർഗ്ഗങ്ങളാണ് പാമ്പിന് കടിക്കാതിരിക്കാനായിട്ട് മണ്ണെണ്ണ അതുപോലെ വെളുത്തുള്ളി എന്നിവയും ഉപയോഗിക്കാവുന്നതാണ് വീടിനും പരിസരങ്ങളിലും സുരക്ഷിതമായിരിക്കാനായിട്ട് കാടുകൾ വെട്ടിത്തെളിക്കുകയും നല്ല രീതിയിൽ വൃത്തി ആക്കിയിടുകയും ചെയ്യേണ്ടതാണ് സവോള തേക്കുക കടന്നൽ കുത്തുകളേറ്റു കഴിഞ്ഞാൽ സവോള തേക്കുകയും മറ്റ് ഉള്ളി അതുപോലെയുള്ള സംഭവങ്ങൾ തേയ്ക്കും നല്ലതാണ്